ഞാൻ പൊതുവേ കുറച്ചൊക്കെ എഴുതാറുള്ളൂ എഴുതി എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ എങ്ങാണ്ട് ഒരു കവിതെയോ കവിതയാണോ പാട്ടാണോ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു കുറേ വരികളക്കെ എഴ്തി അത് പാട്ടായിട്ടും കവിതയായിട്ടും എന്താണെന്നോ എനിക്ക് പറയാൻ അറിയത്തില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എസ്സെ റൈറ്റിങ്ങ് പോലുള്ള കോമ്പറ്റീഷൻസിലൊക്കെ സ്കൂളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു പക്ഷെ എനിക്കാദ്യമായിട്ട് അതിന് ഒരു അംഗീകാരം കിട്ടുന്നത് ഞാൻ പ്ലെസ് ടൂവിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പഴത്തേക്കുമാണ് പ്ലെസ് റ്റൂവിൽ ഞാൻ എസ്സെ റൈറ്റിങ് മലയാളത്തിന് ചേർന്നപ്പഴത്തേക്കും എനിക്ക് അവിടുന്ന് പ്രൈസ് കിട്ടി എനിക്ക് ഒരു കോൺഫിഡെൻസ് ഉണ്ടായിരുന്നു എഴുതാൻ എഴുതുന്നതിൻ്റെ ടോപ്പിക്ക് എനിക്ക് അറിയാവുന്ന ടോപ്പിക്ക് ആയിരുന്നു അപ്പം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അതിനേക്കുറിച്ചിട്ട് എത്രനാളത്തെ എന്റെ ഒരു ഇതുവെച്ച് ഞാനെഴ്തി അതിനെനിക്ക് പ്രൈസ് കിട്ടി എനിക്കൊരു മെഡലും ഒരു സർട്ടിഫിക്കറ്റും കിട്ടി അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പ്രൈസുണ്ട് എന്ന് അറിഞ്ഞപ്പം മുതൽ എനിക്ക് സെക്കൻറ് ആയിരുന്നു അതിൽ പ്രൈസുണ്ട് എന്ന് അറിഞ്ഞപ്പം മുതലെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്റെ കൂട്ടുകാർക്കൊക്കെ ഒരു അത്ഭുതായിപ്പോയി ഈ പ്രൈസ്സ് കിട്ടിയോ ആ കൊള്ളാലോ എന്നൊക്കെ ഒരു രീതിയിൽ നീ എന്നാടി എഴുതിയത് എന്നൊക്കെയാണ് അവർ ചോദിച്ചത് കുറേ പേർ പങ്കെടുത്തു പ്ലെസ് റ്റൂവിൽ എന്ന് പറഞ്ഞാൽ പ്ലെസ് റ്റൂവിലെ എന്റെ കൂട്ടുകാരെല്ലാം ഒരുപാട് പേർ പങ്കെടുത്ത ഒരു സംഭവമായിരുന്നു കോമ്പറ്റീഷനായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരു ആശ്ചര്യം പോലായിപ്പോയി എന്താ നീ ഇതിനുമാത്രം എഴുതിയത് ഞങ്ങളെ കാണിച്ചു തന്നില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്ക് പ്രൈസ് കിട്ടിയത് സ്കൂളിൽ ചെന്നിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് എൻറ്റോർമ്മ വെച്ചിട്ട് ആദ്യമായിട്ടാണ് കുഞ്ഞിലെ ഒക്കെ പ്രൈസ് കിട്ടി മെഡലൊക്കെ കിട്ടിയതല്ലാതെ ഒരു ഇതായിട്ട് കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ മെഡലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പം മെഡലും ഒരു സർട്ടിഫിക്കറ്റും കിട്ടി സ്കൂളിൽ സ്റ്റേജിൽ കയറി അത് പ്രിൻസിപ്പിൾൻ്റെ അച്ഛൻ്റെ കയ്യിൽനിന്ന് വാങ്ങിക്കാൻ പറ്റി അപ്പം അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു എനിക്കത് മറക്കാൻ പറ്റത്തില്ല അത് സാധാരണ എനിക്കും മലയാളത്തിൽ എഴുതുന്നതിനോടാണ് താല്പര്യം ഞാനെന്ന് പറഞ്ഞാൽ ഒരു നാല് വരി അഞ്ച് വരി അതും മലയാളമായിരുന്നു ഈ എസ്സെ റൈറ്റിങ്ങും മലയാളമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാളത്തിൽത്തന്നെ എഴുതാനായിട്ടാണ്